നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പഴഞ്ചൊല്ലുകൾ പിന്നെ നമ്മുടെ മലയാളികളായി നമ്മൾക്ക് ഓരോത്തക്ക് ഇഷ്ടപ്പെട്ട ധാരാള പ്രയോഗങ്ങളും ഉണ്ട് അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി അച്ചടുക്കം ബഹുമാനം ഭക്തി അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ട് മലയാളത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഓരോ ഒരു ഒരു ഒരു ഭാരഗ്രാഫ് തരും അപ്പം നമ്മൾ അത് വായിച്ചിട്ട് അതിന് പറ്റിയ ഏതാണോ ആ പഴഞ്ചൊല്ല് നമ്മൾ പറയണം ഒരുപാട് പഴഞ്ചൊല്കുകൾ ഉണ്ട് മലയാളത്തിൽ മലയാളത്തിൽ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് എന്ത് പരിപാടിക്കും നമ്മൾ പഴഞ്ചൊല്ല് വേറെ പഴഞ്ചൊല്ലിൽ പതിരില്ലാന്നാ പറയുന്നത് അത് പഴഞ്ചൊല്ലാകട്ടെ കടങ്കഥ ആവട്ടെ കവിത ആവട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മലയാളം നമ്മൾ മലയാളികൾക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും പഴഞ്ചൊല്ല് പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മലയാളം മാഷിണ്ടായിരുന്നു മത്തായി സാറ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സാർ ഒരുപാട് പഴഞ്ചൊല്ലുകൾ പറയും നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ സമ്മാനിച്ച നല്ല പ്രശസ്തരായ വ്യക്തികളും കവിയത്രികളും എല്ലാവരും ഒരുപാട് പഴഞ്ചൊല്ലുകൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഉള്ള പഴഞ്ചൊല്ലുകളാണ് അകത്ത് രോമം പുറത്ത് കത്തി അതിനൊക്കെ ഓരോരോ മീനിങ്ങ് കാണും അകത്ത് എന്താണെങ്കിലും നമുക്ക് അറിയത്തില്ല പക്ഷേ പുറത്ത് നമ്മൾ വേറൊരു സ്വഭാവമായിരിക്കും എ നമ്മുടെ ഉള്ളിൽ വേറൊരു സ്വഭാവമായിരിക്കും എന്നായിരിക്കും അതിന് അർത്ഥം പിന്നെ അകിട് ചെത്തിയാൽ പാല് കിട്ടുമോ അപ്പം നമ്മൾ പറയും ചിലപ്പം ഭയങ്കര നമ്മൾ പറയും ഒരുപാട് കാര്യങ്ങൾ വേണം അപ്പോൾ നമ്മൾ പറയും അതെല്ലാം കൂടെന്നങ്ങ് കിട്ടുവായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കും അതിനാണ് നമ്മൾ പറയുന്നത് അകിട് ചെത്തിയാൽ പാല് കിട്ടുക അകിട് ചെത്തി കളഞ്ഞാൽ നമുക്ക് പിന്നെ പാൽ ഒരിക്കലും ഉണ്ടാവൂല്ല അതാണ് വേറൊരു പഴഞ്ചൊല്ല് പിന്നെ അച്ച് നോക്കി ഒച്ച കൂട്ടാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങൾ ആവശ്യമില്ലാതെ നമ്മൾ ഒച്ച എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് പറ്റിയ കാര്യവാണോ അത് അതോ നമ്മൾ ഒച്ച എടുക്കേണ്ട കാര്യം ആണോന്ന് ഒച്ച എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ നമ്മുടെ സ്ഥിതി അല്ലെങ്കിൽ നമ്മൾക്കടെ ആ ഒരു സിറ്റുവേഷൻ നോക്കീട്ട് മാത്രമേ നമ്മൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഒച്ച എടുക്കാവുള്ളൂ പിന്നെ അച്ചി കുടിച്ചതേ കൊച്ച് കുടിക്കൂ എന്ന് വെച്ചാൽ കാർണവന്മാർ വലിയ സമയത്ത് അവർ പറയും നമ്മൾ എന്ത് ചെയ്താലും ന്ന്ച്ചാ അച്ചി നമ്മൾ എന്ത് കാണിച്ചാലും അത് തന്നെയാണ് നമ്മുടെ മക്കൾ അത് കണ്ടേ പഠിക്കൂള്ളൂ പക്ഷേ നമ്മൾ ചീത്ത സ്വഭാവം കാണിച്ചിട്ട് നമ്മുടെ മക്കളോട് നല്ലത് പറയാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല അതാണ് ആ പഴഞ്ചൊല്ലിന് അർഥം പിന്നെ അടക്കമില്ലാത്ത തത്ത അടിയും നമുക്ക് കുറെ നമുക്ക് അടക്കൊ ഇല്ലെങ്കിൽ നമുക്കതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല ഇതൊക്കെയാണ് ഒരുപാട് പഴ പിന്നെ അടി തെറ്റിയാൽ ആനയും വീഴും അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പഴഞ്ചൊല്ലാണ് മലയാള ഭാഷയിൽ സാറിപ്പഴും പറയായിരുന്നു നമ്മൾ വലിയ ധീരന്മാർ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഭയങ്കര പഠിക്കാൻ കഴിവുള്ളവൻ നമുക്ക് എല്ലാം ഭയങ്കര കഴിവുള്ളവൻ അങ്ങനെ ഓർത്ത് നടക്കും പക്ഷേ നമ്മൾ അടി തെറ്റി കഴിഞ്ഞാൽ ആനയും വീഴൂന്ന് പറഞ്ഞത് പോലെ നമ്മൾ ഏതൊരൊളുകൾക്കും അടി തെറ്റിയാൽ നമ്മൾ വീഴും അതപ്പം അത്രയും വലിയ ശക്തനായ കരയിൽ ഏറ്റവും വലിയ ശക്തനായ മൃഗമാണ് ആന ആനയ്ക്ക് വീഴാമെങ്കിലാണോ മനുഷ്യർക്ക് അപ്പം നമ്മൾ നന്നായിട്ട് നോക്കി നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അതാണ് അത് പറയുന്നത് പിന്നെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രയോഗങ്ങൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്വാധീനിക്കും പണ്ട് വയലോപ്പള്ളി മാധവൻ മാഷിൻ്റെ ഒരു മാമ്പഴം എന്നൊരു കവിത അത് മലയാളികൾക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു കവിതയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് വയലോപ്പള്ളി അത്ര മനോഹരമായാണ് ആ മാമ്പഴത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ആ മാമ്പഴത്തിലെ ഓരോ അവസ്ഥകളും വളരെ മനോഹരമായി തന്നെ വൈലൊപ്പള്ളി വിവരിച്ചിരിക്കുന്നു മാമ്പഴം പറിച്ചതിന് കുട്ടീനെ വഴക്ക് പറയുന്നതും ആ കുട്ടി കുറെ കഴിയുമ്പോൾ മരിച്ച് പോകുന്നു അതൊക്കെ വളരെ അർത്ഥവത്തായ ഭാഷയാണ് മലയാളത്തിൽ അതുപോലെ തന്നെ ഒരുപാട് പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ഉണ്ട് വളരെ കാ വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടു ഉണ്ട് പക്ഷേ നമുക്ക് അതൊന്നും നമ്മളന്നും അതൊന്നും പ്രാവർത്തികമാക്കയില്ല മലയാളത്തിലും ഏത് ഭാഷയിലായിക്കോട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ എല്ലാം നോക്കാനും പ്രയോഗിക്കാനും പഴഞ്ചൊല്ലുകളോ പ്രയോഗങ്ങളോ എല്ലാം നമുക്ക് അത് ഒരുപാട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്